ഈ സാധാരണയായിട്ട് ഞാൻ രാവിലെയാണ് കൂടുതൽ സമയം പാചകത്തിനായിട്ട് ചെലവഴിക്കാറുള്ളത് സ്കൂളിലും ഓഫീസിലുമൊക്കെ ഹസ്ബൻ്റിന് പോകണ്ടതു കൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഫുഡ് റെഡി ആക്കണം രാവിലെ അപ്പം അതിന് ഒരു മൂന്ന് നാല് മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ടൈമെടുക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ആവാനായിട്ട് അതുപോലെ തന്നെ പിന്നെ ഈവെനിങ്ങിൽ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം വൈകിട്ടത്തേക്ക് ഡിന്നറിന് എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും റെഡിയാക്കണം അപ്പം അതിനു വേണ്ടിയും കുറച്ചു സമയം ചിലവഴിക്കേണ്ടി വരും പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമായതു കൊണ്ട് എനിക്കങ്ങനെ ഒരു മടുപ്പ് തോന്നാറില്ല പുതിയ പുതിയ ഐറ്റംസൊക്കെ പരീക്ഷിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി ഒരു ചക്ക ഹൽവ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചു ഏറ്റവും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു പാചക വിധി പക്ഷെ അത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷെ അത് ചക്ക നമ്മൾ വേവിച്ച് അതിൻ്റെ ഓരോ പ്രൊസസ്സിങ്ങും വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിലും കൂടുതൽ എനിക്ക് ടൈമ് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷെ വിചാരിച്ച അത്ര എളുപ്പം അല്ലായിരുന്നു അതു കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ക്ലീനിങ്ങും കുറേ ടൈമെടുത്തു അപ്പം ഞാൻ പക്ഷെ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് കുറച്ചു പെട്ടെന്ന് ടൈമ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ വിചാരിച്ച പോലെ ആ ടൈമിനുള്ളിൽ തീർക്കാനൊന്നും പറ്റില്ല പക്ഷെ കുറച്ചു സമയമെടുത്തിട്ടായാലും നല്ല രീതിയിലുള്ള ഒരു ഫുഡ് അവർക്ക് മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് റെഡിയാക്കാൻ ചക്ക ഹൽവ നന്നായിട്ട് റെഡിയാക്കാൻ എന്നെക്കൊണ്ട് പറ്റി പക്ഷെ അത് സമയം കൂടുതൽ എടുത്തു പിന്നെ അതിൻ്റെ ജോലി ഭാരവും കൂടുതലായിരുന്നു എന്നാലും വിചാരിച്ചതിലും നന്നായിട്ട് അതിൻ്റെ ലാസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ചക്ക ഹൽവ നല്ല ടേസ്റ്റിയായിട്ട് എനിക്ക് കിട്ടി അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അത്ര ബുദ്ധിമുട്ടിയാലും നല്ല ഒരു ഫുഡ് റെഡിയാക്കാൻ പറ്റിയല്ലോ എന്ന് എന്ന് ഓർത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു